ആ അതെ ആ പറയു സാർ

ഞാൻ അത് ഞാൻ ഇനി നോക്കിക്കോളാം സാറെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഇത് ആ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളും കുറേ പ്രഷറുകളും ഉണ്ടായിരുന്നെ ഈ ഫുട്ബോള് കളിക്കാൻ പോകുന്നതിന് ഒക്കെ കൂടുതലും വീട്ടുകാർ പറയുന്നത് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് അപ്പോൾ അവിടത്തെ പ്രഷറും പിന്നാ ഫുട്ബോള് കളിക്കാൻ വരുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ മൈൻഡ് ഫ്രീ ആവുന്നത് അപ്പോൾ ഫുട്ബോള് ഇപ്പോൾ നല്ലവണ്ണം കളിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായി ഓക്കെ സാർ സാറിനി ഞാൻ ചെയ്തുകൊള്ളാം സാർ ഇല്ലയില്ല ആരുവില്ല എൻ്റെ ചേട്ടൻ ഉണ്ട് അവൻ സപ്പോർട്ട് ചെയ്യും പക്ഷേ അവന് ഓ ചേട്ടൻ ഫുട്ബോള് കളിക്കാൻ പോവുമായിരുന്നു ഇപ്പോൾ എന്തോ പഠിത്തത്തിൻ്റെ ആവശ്യമായിട്ട് ഇപ്പോൾ ഇല്ല സ്റ്റേറ്റ് വിട്ടുപോയി ഹൈദരാബാദിലാണ് ഇപ്പോൾ ആ സാറിനി ഇനി ഞാൻ നോക്കിക്കോളാം സാർ കാരണം ഇടക്ക് ഞാൻ വാം അപ്പ് കറക്ട് ചെയ്തില്ല എന്നിട്ട് ചെയ്യാണ്ട് ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ കാല് ചെറുതായിട്ടൊന്ന് ഫ്രാക്ച്ചറ് ആയി ഇപ്പോൾ രണ്ടുദിവസംകൊണ്ട് കിടപ്പിലാണ് അതാണ് ഞാൻ ഇപ്പം അങ്ങോട്ട് ഒന്നും വരാത്തത് അത് വാം അപ്പിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു സാറ് എൻ്റെ ഞാൻ ഇവിടുന്ന് നമ്മുടെ ഒരു ഉൾപ്രദേശത്താണ് വീട് അപ്പം അവിടുന്ന് വരാൻ നല്ല ലേറ്റ് ആവും അതുപോലെത്തന്നെ ഈ വീട്ടുകാരിൻ്റെ സാറെ എനിക്ക് ഈ ഫുട്ബോളിലുള്ള ഇൻട്രസ്റ്റ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇത് ഫുട്ബോള് നിർത്താൻ പോവുന്നു എന്നുള്ള ഒരു എനിക്ക് ഒരു ചിന്ത ഉണ്ട് കാരണം വീട്ടുകാരെ പ്രഷറും ഫുട്ബോള് തന്നെ മടുത്തു തുടങ്ങി ഇപ്പോൾ പിന്നെ ഞാൻ കുറച്ച് തിരക്കിലാണ് സാറെ ഞാൻ അങ്ങോട്ട് വിളിക്കാം സാർ ഓ ശരി എന്നാൽ